ഇന്ന് കേരളത്തിൽ നമുക്ക് ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് ഒത്തിരി വെല്ലുവിളികള് ഉണ്ട് നികുതിയുടെ രീതിയില് ആയാലും അല്ലെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പെര്മിഷന് ആയാലും എന്താ പറയുന്നത് എല്ലാ രീതിയിലും നമുക്ക് ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യവസായം തുടരുകയെന്ന് പറഞ്ഞാൽ അതുപോലെ പ്രാക്ടിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഡിഫിക്കല്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യവസായം ആരംഭിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് അറിയാല്ലോ എല്ലാവര്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ള കൊണ്ട് ഒരു വ്യവസായം ആരംഭിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്നവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണു ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളം പുറകോട്ട് ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാന് പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ടി വിയിലും അതിലും ഇതിലുമൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വാര്ത്തകളും കാര്യങ്ങളുമൊക്കെ കാണുന്നുണ്ട് ഒരു വ്യവസായം തുടങ്ങുന്നതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് അവസാനം അവർ ആ ഒരു അതിന്റെ എന്നാ വ്യവസായം ആരംഭം ഇട്ടിട്ട് പോകാനുള്ള ഒരു ഇതിലോട്ട് ആണ് അതായത് പിന്നീട് അത് കേരളത്തിൽ വേണ്ട അല്ലെന്ന് ഉണ്ടെങ്കിൽ വേറെ ഏതെലും സ്ഥലത്തോട്ട് മാറ്റാനോ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള കടുത്ത തീരുമാനത്തിലോട്ട് എത്താനുള്ള ഒരു എന്താ പറയുക ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം ജീവിക്കുന്നത്